ഞങ്ങളുടെ പ്രദേശം ഭരിച്ചിരുന്നത് തിരുവിതാംകൂർ രാജവംശമായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിൽ എല്ലാ ഭരണാധികാരികളും വളരെ മികച്ചൊരു ഭരണം തന്നെയാണ് നമുക്ക് വേണ്ടി കാഴ്ച വെച്ചതു കാരണം അവർ തന്നെയാണിവിടെ റെയിൽവേ കോളേജുകൾ ആശുപത്രികൾ ഇങ്ങനെയുള്ള സം പല സംഭവങ്ങളും ജനങ്ങൾക്കു വേണ്ടി സൗജന്യമായിട്ടു നിർമ്മിച്ചു നൽകിയത് അതുകൊ നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാക്കന്മാരിൽ ആദ്യം അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മയായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് തിരുവിതാംകൂർ എന്ന പറഞ്ഞ രാജവംശം സ്ഥാപിച്ചതും പുള്ളിയാണിവിടെ എല്ലാ എല്ലാ തിരുവിതാംകൂർ രാജാകാര രാജാക്കന്മാരെയും പത്മനാഭ ദാസന്മാർ എന്നാണ് വിളിച്ചു കൊണ്ടിരുന്നത് അവർ അതായത് തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയാണ് വിഷ്ണു അദ്ദേഹത്തെ ശ്രീ പത്മനാഭൻ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ദാസന്മാരായിട്ടാണ് ഇവിടുത്തെ തിരുവിതാംകൂർ രാജവംശം എല്ലാവരും ഭരിച്ചിരുന്നതു തന്നെ അധികം വളരെ അധികം സമ്പത്തുള്ളൊരു രാജവംശമായിരുന്നു തിരുവിതാംകൂർ രാജവംശം അതുകൊണ്ടു തന്നെ പല പല നല്ല നല്ല കാര്യങ്ങളും തിരുവിതാംകൂറിനു വേണ്ടി അവർ ചെയ്തിട്ടുണ്ട് റോഡുകൾ റെയിവേകൾ എഞ്ചിനിയറിങ്ങ് കോളേജ് വിമെൻസ് കോളേജ് ആശുപത്രി മൃഗാശുപത്രി പാലങ്ങൾ പാർവ്വതി പുത്തനാറ് അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ എടുത്തെടുത്തു പറയേണ്ടതുണ്ട് അവർ വളരെ അധികം വിദ്യാഭ്യാസത്തിനു പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ടു തന്നെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ അന്നത്തെ കാലത്തു നല്ല നല്ല രീതിയിലുള്ള സൗജന്യ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യസത്തിനൊരുപാട് പ്രാധാന്യം നൽകിയിരുന്നൊരു രാജവംശമായിരുന്നു അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്കു വേണ്ടിയുള്ള മാത്രമുള്ള കോളേജുകളും സ്കൂളുകളും അവർ പ്രത്യേകം നിർമ്മിച്ചു അവരുടെ ഭരണ രീതിയിൽ തന്നെ നമ്മളെ ഏറ്റവും കൂടുതലാകൃഷ്ടമാക്കുന്നത് ജനങ്ങളോടുള്ള സമ്പർക്കമായിരുന്നു അവർ ജനങ്ങളുമായിട്ടു വളരെ അടുത്തു നിന്ന ആൾക്കാരായിരുന്നു ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കാനുള്ളൊരു മനസ്സവർക്കുണ്ടായിരുന്നു അവരൊരു ഗോത്രവർഗ്ഗ നേതാക്കളൊന്നുമല്ലായിരുന്നു പാരമ്പര്യമായിട്ടു ക്ഷത്രീയ വംശത്തിൽപ്പെട്ടാൾക്കാരാണ് അവർ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിരുന്നാൾക്കാരാണ് പല പല പല സ്ഥലങ്ങൾ യുദ്ധം ചെയ്ത് കേരളത്തോടു കൂട്ടിച്ചേർക്കാനവർ ശ്രമിച്ചിരുന്നു പിന്നേ അവർ ഡച്ച് ആദ്യത്തെ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച ഒരു രാജാവായിരുന്നു അദ്ദേഹം ഒരു ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ രാജാവ് ഒരു വിദേശ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതും അത്രയേറെ ആയുധങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ടായിട്ടും ഇദ്ദേഹത്തിൻ്റെ മുമ്പിലവർ തോറ്റു പോകുകയാണ് അപ്പത്രയും പ്രഗത്ഭരായ അത്രയും ശക്തരായ നേതാക്കൾ രാജാക്കന്മാരായിരുന്നു തിരുവിതാം കൂറിനോ ഉണ്ടായിരുന്നത്